എനിക്ക് പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും ഞാൻ കോളേജിൻ്റെ താമസത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നതു പോലെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ പറ്റുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും നല്ല ആരോഗ്യപരമായ ഭക്ഷണമുണ്ടാക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ആലു പൊറാത്തയാണ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് അതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പൊടികളും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് ഉരുളകളാക്കി ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ വെച്ച് പരത്തി ചുട്ടെടുക്കുക അതിനകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ഉപയോഗിക്കില്ല ഇനി പ്രത്യേകം കുഞ്ഞ് കുട്ടികൾക്കൊക്കെ കുറച്ചു കൂടി സ്വാദ് കൂടാൻ നമ്മൾ നെയ്യൊക്കെ ചേർക്കും അല്ലങ്കില് നമ്മള് വേറെയൊരു എണ്ണയോ നെയ്യോ ചേർക്കാത്തതു കൊണ്ട് തന്നെ ഇത് പ്രത്യേകം വളരെ നല്ല ഒരു ഇതാണ് ഇതിൽ കൂടി തന്നെ ഞാൻ ആലു പൊറോട്ടയുടെ കൂടെ മുക്കി കഴിക്കാൻ ഞാൻ നല്ല ചുവന്ന ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു ഞാൻ തേങ്ങ അരച്ച് അതിനകത്ത് ഉണക്ക ചുമന്ന മുളകിട്ടരച്ച് ഉപ്പും മുളകും കുറച്ച് മുളകിൻ്റെ ഒരു എന്താ പറയുക മുളക് പിഴിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ട് നല്ല ഒരു എരിവുള്ള ചട്നിയുണ്ടാക്കലുണ്ട് തേങ്ങാ ചട്നി ആ ഒരു ചട്നി ഇതിൻ്റെ കൂടെ മുക്കിക്കഴിക്കലുണ്ട് തേങ്ങക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്കൊരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ തേങ്ങ സഹായിക്കും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊരുപാട് നമുക്കാവശ്യമുള്ള സംഭവങ്ങളുണ്ട് അതിനകത്ത് കുറച്ച് അതായത് ഷുഗർ പേഷ്യൻറ്റ്സൊക്കെയാണെങ്കിൽ അത് കഴിക്കാത്തതാണ് നല്ലത് എന്നാലും ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന ഈ ആലു പൊറാത്തയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഉണ്ടാക്കൽ പിന്നെ ഉണ്ടാക്കാറുള്ള ഒന്നാണ് കബാബ് കബാബ് ഞാൻ ഇറച്ചി വെച്ചുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഞാനുണ്ടാക്കുന്നത് നമ്മുടെ സോയ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് അത് ഞാൻ നന്നായി വേവിച്ചതിനു ശേഷം അരച്ച് അതിനു കൂടി കുറച്ച് കടല മാവും ഇഞ്ചി പച്ചമുളക് വേപ്പില ഇട്ട് അരച്ച ഒരു മിശ്രിതവും കൂടി ഇളക്കി കുഴച്ച് ഉരുളകളാക്കി അതിനെ കബാബിൻ്റെ ഷേപ്പിലാക്കി ഞാൻ ചുട്ടെടുക്കലുണ്ട് ഇത് ഞാൻ എങ്ങനെ ചുടലെന്നു വെച്ചാൽ കഴിഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക പപ്പടക്കോൽ പോലത്തെ വടിയിന്മേൽ ഞാൻ ഇങ്ങനെ ഒരു നാലഞ്ച് ഉരുളകളൊന്നിച്ച് അതിന്മേലിട്ട് തീയിൽ നേരെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യല് ഇത് വളരേ നല്ലതായിട്ടുള്ള ഒരു വഴിയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഇത് പോലെ പറഞ്ഞതു പോലെ ഒരു തുള്ളി എണ്ണയ്യോ നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പൊട്ടയായിട്ടുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വളരേ അധികം ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത് അതുകൊണ്ടിത് വളരെ ഉപകാരപ്പെട്ട സംഭവങ്ങളാണ്